ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കളിക്ക് തുല്യ പ്രാധാന്യമാണുള്ളത് കായിക അധ്വാനത്തിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും കളികളിലേർപ്പെടുന്നത് കൂടാതെ വിനോദങ്ങൾക്ക് വേണ്ടി കളികളിലേർപ്പെടുന്നവരും ഉണ്ട് സീസണൻസരിച്ച് ഇപ്പം ഉൾനാടുകളിൽ കളികൾ വ്യത്യാസപ്പെടുന്ന പല മൈതാനങ്ങളിലും ഇപ്പോൾ ഐ പി എൽൻ്റെ സമയമായത് കൊണ്ട് ക്രിക്കറ്റ് കളിയാണ് നടക്കുന്നത് എന്നാൽ ഐ എസ് എൽ പോലെയുള്ള വായക്ക മത്സരങ്ങൾ വരുമ്പോൾ ഫുഡ്ബോള് വരുന്നുണ്ട് വോളീബോള് വരുന്നുണ്ട് കബഡി വരുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തതരമായ കളികളിലേർപ്പെടുന്ന ഉൾനാടുകളിൽ മാണ് പ്രധാനമായി ഇത് കണ്ട് വരുന്നത് നഗരങ്ങളിലും മറ്റും സ്ഥലങ്ങളിൽ ഇപ്പോൾ കളി മൈതാനങ്ങളോ സ്ഥലങ്ങളോ ചുരുങ്ങീ കൊണ്ടിരിക്കയാണ് എല്ലായിടെത്തും കെട്ടിടങ്ങളും ബിൽഡിങ്കളും കെട്ടിപ്പടുത്തുന്നതിലാണ് മനുഷ്യൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നാൽ ബിസിനസ്സ് ലെവ് തലത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നഗരങ്ങളിൽ ടറഫുകൾ പോലുള്ള പുതിയ സംവിധാനങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട് അതായിത് ഒരു ആധുനിക രീതി പുൽ മേടുകളും ചുറ്റും ക്ലോസ്സ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും വെച്ച് കൊണ്ട് അവിടെ കളികളിലേർപ്പെടുന്നവരുണ്ട് ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നൊക്കെ അന്നട്ടിൽ ഇത്ര പേർക്ക് വന്ന് കളിക്കാമെന്ന് നിബന്ധനകളോട് വന്ന് കളിക്കുന്നവരുണ്ട് എന്നാൽ മൈതാനങ്ങളും ഗ്രാമങ്ങളും ചുറ്റും ഉണ്ടായിട്ടും അതിനൊന്നിലും അതാ കളിക്കുവാൻ താല്പര്യം കാണിക്കാത്ത കുട്ടികളുമുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ദുര്യുപയോഗോം കാരണം ഗെയിമ്കളിലേർപ്പെട്ട് കൊണ്ടിരിക്കുന്ന കുട്ടികൾ മൊബൈൽൻ്റെ ഉപയോഗത്തിൽ അടിമകളായി കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കായിക അത്പരമായ അധ്വാനിക്കാനോ അതിൽ ആനന്ദം കണ്ടെത്താനോ സാധിക്കാത്തത് മൂലം ഉൾനാടുകളിലുള്ള പോലും കളികൾ കളി കളികൾ അവർ താല്പര്യം കാണിക്കുന്നില്ല എന്നാൽ ഇത് കളി കളികളിലേർപ്പെട്ട് ഡേയ്സ് സ്ഥിരമായി കളികളിലേർപ്പെടുന്ന കുട്ടികൾക്ക് അവരാ കളികളെപ്പറ്റി പഠിക്കേം അവരെ കായികപരമായ ശേഷി വർദ്ധിപ്പിക്കേം വർദ്ധിക്കേം അങ്ങനെ പല മേൻമകളുണ്ടാവുന്നുണ്ട് സാമൂഹികപരമായ വ്യക്തി ബന്ധങ്ങൾ രൂപപ്പെടുന്നു നല്ല നല്ല സൗഹൃദങ്ങളുണ്ടാവുന്നു ചിരിക്കാനും സന്തോഷിക്കാനുമുണ്ടാവുന്നു മാനസ്സികപരമായി അവർക്ക് ഉള്ള പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു മാനസ്സിക ആരോഗ്യം മാനസ്സിക സന്തോഷം മുതലായ കാര്യങ്ങളും അവർക്ക് ഇല്ല ഇതിലൂടെ ലഭിക്കുന്നു കളികളിലേർപ്പെടുന്നത് മൂലം അവർ കളിയുടെ നിയമങ്ങൾ പഠിക്കുന്നു ആ ഒരു മേഖലയിൽ അവർക്ക് വ്യക്തിപരമായ കഴിവുകൾ കണ്ടെത്താൻ സാധിക്കുന്നു ആ ഒരു പാഷനെ മുൻനിർത്തി ജീവിത മാർഗമാക്കാനും സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് സാധിക്കുന്നുണ്ട് കളികളിലേർപ്പെടുന്നത് വഴി കായികമായി മാത്രമല്ല മാനസ്സികമായും ശാരീരികപരമായും അവർക്ക് വളരാനും അവരെ ശ്രദ്ധയെ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിർത്തി അതിൽ വിജയം കണ്ടെത്താനും സാധിക്കുന്നു കൂടാതെ നല്ല നല്ല സൗഹൃദങ്ങൾ നല്ല നല്ല ഓർമ്മകൾ നല്ല നല്ല സംഭാഷണങ്ങൾ എന്നിവയ്ക്കും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്